കൂടുതലായി എൻ്റെ പ്രദേശത്തിൽ കണ്ടുവരുന്ന ഒരു കരകൗശല വസ്തുവാണ് ഈ മൺപാത്രമെന്നു പറയുന്നത് മൺപാത്രം നിർമ്മാണം അതിൽ കൂടുതലായി കണ്ടു വരുന്നത് ഈ കളിമണ്ണും വെള്ളവും പിന്നെ ഒരു ചക്രവുമാണ് ഈ കളിമണ്ണിനെ ഒരു പ്രത്യേക ഒരു ആകൃതിയിൽ ഉണ്ടാക്കി വെള്ളം ഉപയോഗിച്ച് നന്നായി കുഴച്ച് ഈ ഒരു ചക്രത്തിൽ വെച്ച് ഈ ആരാണോ ഉണ്ടാക്കുന്നത് ആ ആൾ അയാളുടെ കൈകൾ ഉപയോഗിച്ചാണ് ഈ ഒരു കൂടുതലും കയ്യിൽ കയ്യിൻ്റെ ഒരു ഉപയോഗമാണതിൽ വരുന്നത് അപ്പോൾ ഒരു ആവശ്യം ആയിട്ടുള്ള ഒരു ആകൃതിയിൽ അതിനെ മെനഞ്ഞെടുത്ത് ആ ഒരു വ്യക്തിയാണ് തീരുമാനിക്കുന്നത് ഏതാകൃതിയിലാണ് ആ ഒരു വസ്തുവിനെ കൊണ്ടുവരേണ്ടതെന്നുള്ളത് അപ്പോൾ അങ്ങനത്തെയൊരു ആകൃതിയിൽ അതിനെ കറക്കി കറക്കി ആ ഒരു മൺ ഒരു പാത്രം ഉണ്ടാക്കി എടുക്കുന്നു ആ ഇതാണ് നമ്മുടെ പ്രദേശത്തിൽ സാധാരണയായി കണ്ടു വരുന്നത് ഈ ഒരു കരകൗശല വിദ്യ അവിടെയുള്ള ആൾക്കാർ ആളുകൾ അവരുടെ ഒരു ജീവിത മാർഗ്ഗമെന്നപോലെ ഉപയോഗിക്കുന്നുണ്ട് അതിനെ പലതരത്തിലുള്ള പാത്രങ്ങളും ചെറിയ ചെറിയ പിഞ്ഞാണങ്ങളും ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്നതോടെ അതവർക്ക് ഒരു മ ജീവിത മാർഗ്ഗവും അല്ലെങ്കിൽ ഒരു പൈസയുടെ ഒരു ഇതും അതിലൂടെ അവർക്ക് ലഭിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു രീതിയാണ് എൻ്റെ ഒരു ആ ഒരു പാരം ആ ഒരു പ്രദേശത്തിലെ പാരമ്പര്യമായ കരകൗശല വസ്തു എന്നു പറയുന്നത്